ഹലോ ഗുഡ് മോർണിങ്ങ് എസ് ആർ എൽ ട്രാവൽസ് അല്ലേ ഇത് എനിക്കൊരു നാല് പേർക്ക് പോവാനുള്ള തിരുവനന്തപുരം കാഴ്ച്ച ബംഗ്ലാവിലെ വരുന്ന പത്താം തീയതി പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുടുമ്പസമേതമാണ് അന്നേരം അതിനൊരു നാല് പേരുടെ ഒരു ക്യാബ് വേണമായിരുന്നേ അതിന് എന്നാ റേറ്റ് ആകും എന്നൊന്ന് പറയാൻ പറ്റുമോ ഇപ്പം അറിയുവാണെണെങ്കിൽ ഉപകാരമായിരുന്നു അതുപോലെ തന്നെ ഞങ്ങൾ മുതിർന്നവരാണ് നാല് പേർ പിന്നെ ഒരു രണ്ട് കുട്ടികളും കൂടെ ഉണ്ട് അപ്പം അങ്ങനെ ആറ് പേരുടേത് ഉണ്ടെങ്കിൽ മതി ക്യാബേ ഇതിൽ ഏതാണ് നമുക്ക് പറ്റിയത് അതിൻ്റെ റേറ്റ് എത്രയാണെന്നും കൂടെ ഒന്ന് പറയണം പത്താം തീയതി രാവിലെ അവിടെ പത്ത് മണിക്ക് തൊർ തുറക്കുമല്ലോ ആ സമയത്ത് പോയിട്ട് ഞങ്ങൾക്ക് അവിടെ അടുത്തുള്ള ഒരു ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ കൂടെ ഒക്കെ ഒന്ന് രണ്ട് എട്ട് പോരാനുണ്ട് അന്നേരം ആ രീതിയിൽ പോയിട്ട് രാവിലെ പോയിട്ട് വൈകുന്നേരം നമുക്ക് ഒത്തിരി ഇരുട്ടുന്നതിന് മുന്നേ ഇവിടെ തിരിച്ച് ഞങ്ങളെ എത്തിക്കുകയും കൂടെ വേണം ആ സമയം അറേഞ്ച് ചെയ്ത് നിങ്ങളുടെ ഈ ക്യാബ് വരാനുള്ളൊരു സംവിധാനം ചെയ്യണം അപ്പം അത് അതിൻ്റെ വിവരങ്ങൾ ഞാ രൂപ എത്രയാണ് എന്ന് ഒന്ന് പറയണം നാല് പേർക്ക് കയറാവുന്ന ക്യാബും ആറ് പേർക്ക് കയറാവുന്ന ക്യാബും അപ്പോൾ അത് ഇന്ന് തന്നെ പറയണേ നമുക്ക് അത് പറ്റാ നിങ്ങൾക്ക് വരാൻ സാധിക്കത്തില്ലെങ്കിൽ നമുക്ക് വേറെ ഏതാണ് ഏജൻസി ഉണ്ടെങ്കിൽ അവരുടെ വിവരവും കൂടെ ഒന്ന് വാട്സപ്പ് എൻ്റെ ഈ നമ്പറിൽ തന്നെ വാട്സപ്പ് ഉണ്ടേ അപ്പോൾ ഇതിലേക്കൊന്ന് അതൊന്ന് അറിയി ഇട്ടിരിക്കണം വാട്സപ്പിലേ ഇന്ന് തന്നെ ഇടണേ അതിൽ മാറ്റം ഒന്നും വരല്ല് ഞങ്ങൾക്ക് അത്യാവശ്യം ആയതുകൊണ്ടാണ് പറയുന്നതേ അപ്പം ശരി ഓക്കെ